വാര്ത്ത താരങ്ങളും ആയി ബന്ധപ്പെട്ട വിഷയങ്ങള് വരുമ്പോള് വാര്ത്തകള്ക്ക് സ്വകാര്യത തീരെ പരിഗണിക്കാത്തതാണ് കാരണം എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് അങ്ങനുള്ള ന്യൂസുകളൊക്കെ അവര്ക്ക് കൈയ്യിൽ കിട്ടുമ്പോള് ഒത്തിരിയധികം റേറ്റോട് കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാന് സാധിക്കും നമ്മുടെ ദിലീപിന്റെയക്കെ കേസെടുത്ത് കഴിഞ്ഞാല് തന്നെ അത് ഇപ്പം മഞ്ചുവാര്യർന്റെയും ഒത്തിരിയധികം വലിച്ചിഴക്കപ്പെട്ട ഒരു കേസാണ് കാരണം മാധ്യമങ്ങള്ക്ക് എന്ത്മാത്രം അത് വലിച്ചോണ്ട് പോകാവോ ആള്ക്കാരിലേക്ക് അതെത്തിക്കാവോ അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെയാണവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കില് ആള്ക്കാരുടെ സ്വകാര്യതയെന്നുള്ളത് എല്ലാ വ്യക്തികളെപ്പോലെയും അവര്ക്കും ഒരു സ്വകാര്യത നല്കേണ്ടതാണ് നമ്മുടെ നിയമമനുസരിച്ച് ഒരു കേസിൽ പ്രതിയാകുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കില് ആ ഒരു വിക്റ്റിമിന്റെ പേരൊ മറ്റ് കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തരുതെന്നൊരു നിയമം നമ്മുടെ രാഷ്ട്രത്തിലുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ച് അതൊന്നും നടപ്പാക്കപ്പെടുന്നില്ല അതിന്റെ മെയിനുദേശം തന്നെ ഈ വാര്ത്താലോബികളാണ് പല മാധ്യമങ്ങളും ഈ ഇവരെക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതും പ്രത്യേകമായിട്ട് ഇവരുടെ ഈ വാര്ത്താ പ്രാധാന്യമുള്ള സെലിബ്രിറ്റീസിന്റെ ഇഷ്യൂസ് വരുമ്പോള് അത് കൂടുതൽ ഊതിപ്പെരുപ്പിക്കുവാനും അല്ലെങ്കിൽ എന്തെങ്കിലുമില്ലാത്ത വാര്ത്തകളൊക്കെ ഉണ്ടാക്കുവാനുമൊക്കെ അവർ പരമാവധി ശ്രമിക്കാറുണ്ട് അത് താരമൂല്യം അനുസരിച്ചാണ് വാര്ത്തയുടെ പ്രാധാന്യം മുന്നോട്ട് പോകുന്നത് അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് ഈം ഭാരതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടിവിടുത്തെ ആള്ക്കാരാണ് എന്നുള്ളത് തിരിച്ചറിയാനും എല്ലാ നിയമോം എല്ലാവര്ക്കും ബാധകമാണ് അവരുടെയും സ്വകാര്യതകൾ ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയാലൊരു വാര്ത്താ പ്രാധാന്യമുള്ള ഏതെങ്കിലുവൊരു താരം അവര്ക്ക് സ്വതന്ത്രമായിട്ട് പൊതു നിരത്തില് നടക്കാന് പോലും പറ്റാത്തൊരു സാഹചര്യമാണ് അവരുടെ സ്വകാര്യതയിലേക്ക് എല്ലാവരും എത്തി നോക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചീ ബിഗ് ബോസെന്ന് പറയുന്നൊരു പ്രോഗ്രാമക്കെ വന്നതോടു കൂടി വളരെ അധികമായിട്ടതിനെ അങ്ങ് വല്ലാണ്ടാക്കിക്കളയുന്നൊരു രീതിയാണ് ഒരു വ്യക്തിയുടെ എല്ലാ സ്വകാര്യതകളേം സ്വകാര്യ സംഭാഷണങ്ങളെയും സ്വകാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പബ്ലിക്കാക്കുന്ന രീതീലേക്ക് അത് പോവുകയാണ് അതൊക്കെ ആള്ക്കാരിലേക്കും മാറുകയാണ് അതൊക്കെ പൈസക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം എങ്കിലും ഇന്നത്തെ പൊതുജനം അല്ലെങ്കിൽ സാധാരണ ആള്ക്കാർ വളര്ന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെയൊരു സ്വകാര്യത ഇല്ലാത്തൊരു സാഹചര്യങ്ങളിലെക്ക് പോവുകയാണ് എല്ലാം പബ്ലിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഇവിടിപ്പം എവിടെങ്കിലും പോയാൽ ഉടനെ ഞാനിവിടെയാണ് എന്ന് സ്റ്റാറ്റസിടുന്നു ഞാനിന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞോണ്ട് സ്റ്റാറ്റസിടുന്നൊരു സ്വഭാവങ്ങൾ അതുപോലെ യാതൊരുവിധ സ്വകാര്യതയും ഈ വാര്ത്താപ്രാധാന്യമുള്ളവര്ക്ക് ഇന്ന് ലഭിക്കുന്നില്ല അവരെ ഒത്തിരിയധികം ഹര്ട്ട് ചെയ്യുന്ന രീതീലാണ് അവർ ആര്ട്ടിസ്റ്റാണ് അല്ലെങ്കിലവർ അവരുടെ ഉപജീവനമാര്ഗമാണത് എന്ന് പറഞ്ഞ് അവരുടെതായ വ്യകതിപരമായ ജീവിതങ്ങൾ അവര്ക്കൊണ്ട് സ്വകാര്യതകളുണ്ട് അവരുടെ കുടുംബ ജീവിതമുണ്ട് അവരുടെ കുടുംബമുണ്ട് അവരുടെ മറ്റ് സാഹചര്യങ്ങളെക്കെയുണ്ട് അതും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അവരെ നമ്മൾ ക്രൂശിക്കയല്ല ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളും ഓരോ കേസുകള് വരുമ്പം ലാഭം എന്നുള്ള ഒരു കണ്ണോടുകൂടിയാണ് പലരും ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അത് പുറത്തേയ്ക്ക് ഇപ്പം തന്നെ നമ്മുടെ കര്ണാടകയിൽ ആ ഒരു ലോറിയപകടം അല്ലെങ്കിലാ മണ്ണിടിച്ചിലിന്റെ കേസ്കൾ വന്നപ്പം അവിടെ ആ വ്യക്തിയിടെ കുടുംബത്തെ പോലും ഹെർട്ട് ചെയ്യുന്ന രീതിയിലാണ് അപ്പം പല സോഷ്യല് മീഡ്യാസും ഇടപെട്ടത് അതുപോലെ അവിടെയുണ്ടായിരുന്ന പോലീസുദ്യോഗസ്ഥരേം കര്ണാടക സ്റ്റേറ്റിനെയും എല്ലാം പഴിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ അത് പോകാൻ ഇടവരുന്നുണ്ട് അപ്പം സ്വകാര്യത എല്ലാവര്ക്കും ആവശ്യമാണ് ഈ സോഷ്യല് മീഡ്യാ വന്നതോട് കൂടി സ്വകാര്യത എന്ന് പറയുന്ന സാധനം എല്ലാവര്ക്കും നഷ്ടപ്പെട്ട് പോവുകയാണ്